ജീവിതത്തിൽ കായിക വിനോദങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം അല്ലെങ്കിലവയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നതിനെക്കുറിച്ച് എനിക്ക് കുറച്ചു കാര്യങ്ങൾ പറയുവാൻ താല്പര്യമുണ്ട് ആരോഗ്യമുള്ള ശരീ അതായത് നമ്മൾക്ക് കായികവിനോദമെന്ന് പറയുന്നത് ആരോഗ്യമുള്ള ശരീരത്തിലേ ഒരു നല്ല മനസ്സുണ്ടാകത്തുളളൂ ശരീരം ആരോഗ്യമുണ്ടെങ്കിലേ നമുക്കുന്മേഷം കാണത്തുള്ളു അപ്പോൾ കായികമെന്ന് പറയുന്നതൊരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും വളർച്ചയെ പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെതന്നെയൊരു വ്യകതിയുടെ ആത്മവിശ്വാസത്തെ വർധിപ്പിക്കുവാനും കായികവിനോദങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒരൂ കായിക വിനോദം അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും അതുപോലെതന്നെ അവരുടെ മാനസികവും ശാരീരികവുമായ ഉണർവിനും പിന്നെ ഇന്നത്തെ കാലം വളരെ സമ്മർദ്ദം നിറഞ്ഞ ഒരു എളുപ്പം നിറ ഓടിപ്പോകുന്നൊരു ജീവിത സാഹചര്യത്തിലൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ നമുക്കൊരു റിലീഫ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഒരു കായിക ഇനത്തിൽ ഏർപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും അത് നമ്മുടെ മാനസികസമ്മർദ്ദം കുറയ്ക്കുന്നതിന് വളരെയേറെ സഹായകമായിരിക്കും പിന്നെ അതൊരു നമ്മുടെ ശരീരവളർച്ചയ്ക്ക് നമ്മുടെ മാനസികവളർച്ചയ്ക്ക് നമ്മളെപ്പോഴും ഫ്രഷായിട്ടിരിക്കുവാൻ ഒരു കായികവിനോദം നമ്മളെയെപ്പോഴും സഹായിക്കും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്കൂൾ തലത്തിൽ തന്നെ ഇത് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നമ്മളുടെ കുട്ടികളെ ആത്മീയം ശാരീരികമായും ബുദ്ധിപരമായും വളർത്തുന്നതിന് അത് വളരെ പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് അത് നമ്മൾ സ്കൂളുകളിൽ അത് വിദ്യാഭ്യാസം തുടങ്ങുന്ന കായികവിദ്യാഭ്യാസം തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണെൻ്റെ അഭിപ്രായം ഒരു ചിട്ടയായ കായിക പരിശീലനം ഉണ്ടെങ്കിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ അത് വളരെ ബുദ്ധിയേയും വളരെ വളർച്ചയെ വളരെയേറെ സഹായിക്കും പിന്നെ അവർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ തടയുവാനും പിന്നെ ഇന്നത്തെക്കാലം വളരെ ഫാസ്റ്റായിട്ടോടുന്ന ഇതാണ് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ കുട്ടികളുടെ ഭക്ഷണരീതി പഴയതുപോലെയൊന്നുമല്ല അപ്പോൾ ജങ്ക് ഫുഡ്ഡുകൾ കൂടുതൽ കഴിക്കുന്ന കുട്ടികളും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ആ ഇതിൽ നിന്നുണ്ടാകുന്ന രോഗ ആരോഗ്യപരമായ കാര്യങ്ങളെ നേരിടാനും ഒരു കായികവിനോദം കുട്ടികളെ സഹായിക്കുന്നതായിരിക്കും എന്നുള്ളതാണെന്റെ അഭിപ്രായം അപ്പോൾ അങ്ങനെയൊരു ചിട്ടയായ പരിശീലനം കിട്ടിയെന്നാൽ കുട്ടികളുടെ ശാരീരികവും മാനസികവും ആയ വളർച്ചയെ ബുദ്ധിപരമായ വളർച്ചയെ അത് നന്നായി സഹായിക്കും അതുപോലെത്തന്നെ രോഗങ്ങളെ തടയാനും സഹായിക്കും അപ്പോൾ നമ്മൾക്കൊരു രോഗത്തെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുകയോ അതിൻ്റെയൊന്നും ഒരാവശ്യവുമുണ്ടാകത്തില്ല ആരോഗ്യകരമായ ജീവിതം നയിക്കാനും പിന്നെ ഒരു കുട്ടി ഒരു കായിക വിനോദത്തിൽ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ ടീമിൽ ഉൾപ്പെടുകയാണെങ്കിൽ ആ കുട്ടി ഒറ്റയ്ക്ക് മാത്രമല്ല കളിക്കുന്നത് അപ്പോൾ ആ കമ്പാനിയൻസുമായിട്ട് കളിക്കുമ്പോഴത്തേക്കും അവരെ ഒരു ടീമിൽ കുറഞ്ഞത് പത്തോ പന്ത്രണ്ടോ പേരുണ്ടെന്നുള്ളതാണെന്റെ വിശ്വാസം അപ്പോൾ അവർ തമ്മിൽ കളിക്കുമ്പോൾ ആ കളിയുടെ ഇടയിൽ ആ കുട്ടിക്കൊരു പരിക്കേൽക്കുകയോ കൂടെ ഉള്ള ഒരു വ്യക്തിക്ക് പരിക്കേൽക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ അപ്പം കുട്ടികളിൽ മറ്റുള്ളവരെ കരുതാനുള്ളത് മറ്റുള്ളവരെ സഹായിക്കാനുള്ളത് അങ്ങനെയുള്ളൊരു ചിന്ത അവരിലേക്ക് വരും അപ്പോൾ അതവരിൽ സഹപാടികളിൽ അല്ലെങ്കിൽ കൂട്ടുകാരിൽ അവരെ സഹായിക്കാനും അവരെ കരുതാനും പഠിക്കുന്നത് അത് കുട്ടികൾ അവിടെ അഭ്യസിച്ചത് വീട്ടിലും അവർ കുടുംബത്തിലും അത് പ്രാവർത്തികമാക്കും അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ശരിക്കും കായികമെന്ന് പറയുന്നത് വളരെ നല്ല ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രഗൽഭരായ എന്നെ സംബന്ധിച്ച് ഫുട്ബോൾ പ്ലെയറായ മെസ്സി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടികളെപ്പോലും വീട്ടിലതിന് കുട്ടികൾ ഒന്നും രണ്ടും മൂന്നും എഴുന്നേറ്റു നടക്കാൻ പ്രായമാകുന്ന കുട്ടികളും പോലും അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഇനമായ ഫുട്ബോൾ പരിശീലിപ്പിക്കാറുണ്ട് അദ്ദേഹത്തെ എനിക്ക് അത് ഞാനദ്ദേഹത്തെ ആരാധിക്കുന്നൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ആ ഒരൂ സ്പോർട്സ് അദ്ദേഹം ആ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹവും കരുതലും അതദ്ദേഹത്തിൻ്റെ ആ കായികത്തിൽ നിന്ന് കിട്ടിയതാണെന്നുള്ളതാണെൻ്റെ വിശ്വാസം അതുകൊണ്ട് ഇന്നത്തെ വളർന്നുവരുന്ന തലമുറയെ മറ്റുള്ളവരെ കരുതാനും സ്നേഹമുള്ളവരായിട്ട് ജീവിക്കുവാനും വേണ്ടി ഒരു കായികവിനോദം അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കും സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് സ്കൂൾ തലത്തിൽത്തന്നെ കായികവിനോദം അഭ്യസിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ തീ കാഴ്ചപ്പാട്